ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഫ്രണ്ട്സ് എല്ലാവരുംകൂടെ ഒത്ത് ചേർന്ന് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കും ഇന്നത്തെ ദിവസം ഇന്ന ദിവസം അങ്ങനെ നമുക്ക് മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പാക്കേജ് ഒക്കെ ഷെഡ്യൂള് ചെയ്ത് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കാറുണ്ട് അല്ലാണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിങ്ങനെ നിക്കുമ്പോത്തേക്കും ഫ്രണ്ട്സ് പറയും നമുക്ക് എവിടെയെങ്കിലും പോയാലോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും നടക്കുന്നത് അങ്ങനെത്തെയാണ് പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പും നടക്കാറില്ല കൂടുതലും ഫ്രണ്ട്സുമായിട്ട് ചുമ്മാ ഫ്രണ്ട്സുമായിട്ട് കണ്ടിരിക്കുമ്പം എവിടെയെങ്കിലും പോവാം എന്ന് പറയും അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഷെഡ്യൂളിങ്ങോ പാക്കേജിങ്ങോ അങ്ങനെയൊന്നും ഇല്ല അപ്പം തീരുമാനിക്കുന്നു അപ്പം പോവുന്നു അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ യാത്ര തിരിക്കുന്നത് അങ്ങനെത്തെ യാത്രകളാണ് കൂടുതലും നടന്നിട്ടും ഉള്ളത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് അങ്ങനെയാണ് ഒരു പ്ലാനും ഇല്ലാണ്ട് ഒറ്റ യാത്ര അപ്പം ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ബൈക്ക് റൈഡ് നടത്താം എന്ന് പറയും അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ യാത്രകളും സംഭവിച്ചിട്ടുള്ളത് രാവിലെ ഫ്രണ്ട്സ് വരും ഇന്ന സ്ഥലത്ത് പോവാം എന്ന് പറയും അങ്ങനെ ഒറ്റ പോക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്